പരസ്പരം ഒത്തുകൂടാനും കൂട്ടുകാർ തമ്മിൽ നല്ല നല്ലൊരു മനോഹരമായ നിമിഷങ്ങൾ നമുക്ക് പങ്കിടാനും ഒക്കെ നമുക്ക് ഈ കളികളിലൂടെ സാധിക്കും അതുപോലെത്തന്നെ വൈകുന്നേരങ്ങളിൽ നമ്മൾ ഒരു സ്കൂൾ വിട്ടു വന്ന പ്രായം സ്കൂൾ പ്രായത്തിലാണെങ്കിൽ സ്കൂൾ വിട്ട് വന്ന് നമ്മൾ എന്തു ചെയ്യും അമ്മമാർ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കിത്തരും അത് കഴിച്ച ശേഷം നമുക്ക് നമ്മുടെ കൂട്ടുകാരോടൊപ്പം നമ്മൾ കളിക്കാൻ പോവും അതൊരു ഒരു മറക്കാൻ പറ്റാത്ത കാര്യമാണ് അതൊക്കെ ഇപ്പോൾ ഒരു എന്ന് അങ്ങനെയുള്ളൊരു അനുഭവമാണ് മറ്റേ നമ്മൾ അവരുമായിട്ട് കളിക്കും നമുക്കവരുമായിട്ട് നമ്മൾ സംഭാഷണത്തിൽ ഏർപ്പെടും അങ്ങനെ ചിലവർ നമുക്ക് അറിയാത്ത നമ്മുടെ കൂട്ടുകാരുടെ കൂട്ടുകാരൊക്കെ വരും കളിക്കാൻ അപ്പോൾ നമുക്ക് നമ്മളറിയാത്തവരുമായിട്ട് നമ്മൾ പരസ്പരം പരിചയപ്പെടും നമ്മൾ പരസ്പരം ബന്ധപ്പെടും അതേപോലെത്തന്നെ നമുക്ക് പരസ്പരം നമുക്ക് ഒരു നല്ല ഒരു രീതിക്കുള്ള ഫ്രണ്ട്ഷിപ്പ് നമുക്ക് സുഹൃത്ത് ബന്ധം നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും അതേപോലെത്തന്നെ പിന്നീട് പറയുകയാണെങ്കിൽ ഈ കളികളിലൂടെ നമ്മൾക്ക് നമ്മുടെ സമയം നമുക്കും നമുക്ക് നമ്മൾ ഈ റിലാക്സ് ചെയ്യാനെടുക്കുന്ന സമയം അത് നമ്മൾ കളിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നല്ല നിമിഷങ്ങൾ നമ്മൾക്ക് ഉണ്ടാകും അതേപോലെത്തന്നെ പിന്നീട് കളികളെ ഓർത്തു നമ്മൾ നമുക്ക് നമുക്ക് തന്നെ ഓർത്താൽ നമ്മളെ കൂട്ടുകാരെയൊക്കെ എത്രത്തോളം നമ്മൾ കളിച്ചിട്ടുണ്ട് നമ്മൾ കൂട്ടുകാരുമായി എങ്ങനെയൊക്കെയായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും അതേപോലെത്തന്നെ നമ്മൾ ഉൾനാടുകളിലുള്ള കളികളെന്നു പറയുന്നത് കൊച്ചു കൊച്ചു കളികളാണ് ഈ കൊച്ചു കൊച്ചു കളികളിലൂടെ തന്നെ നമുക്ക് എന്ത് ഈ മൊബൈൽ ഫോണിലൂടെ കിട്ടുന്ന ഈ പറയുന്ന സന്തോഷങ്ങൾ ഇരട്ടിയുടെ ഇരട്ടി നമ്മൾക്ക് ഉൾനാടുകളിലെ കളികളിൽ നിന്ന് കിട്ടും ഈ ഈ ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ ഈ ഗ്രൗണ്ടുകളിൽക്കൂടി പന്ത് തട്ടാൻ മടിയുള്ള ആൾക്കാരുണ്ട് അന്നത്തേയൊക്കെ കാലത്തു ചെറുപ്രായത്തിൽ എല്ലാം ഞങ്ങൾ പാടങ്ങളിൽ കണ്ടങ്ങളിൽ വെള്ളം കയറിക്കഴിഞ്ഞാൽ അവിടെ ഫുട്ബോൾ കളിക്കും അതൊക്കെ ഒരു മനോഹരമായ നിമിഷങ്ങളാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളാണ് നമുക്ക് ഒത്തുകൂടി നമുക്ക് സംസാരിക്കാം പരസ്പരം പരിചയപ്പെടാം പരസ്പരം കളിയാക്കാം പരസ്പരം നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ കൂട്ടുകാരുമായുള്ള അത്രേയും നമുക്ക് അടുക്കാം ഒരു ഒരു അത് നമുക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കും പിന്നീട് പറയുകയാണെങ്കിൽ ഈ ഉൾനാടുകളിൽ ഈ കളികളെല്ലാം ഒരു പ്രായം വരെ ഉണ്ടാവുകയുള്ളൂ ആ പ്രായത്തിന് ശേഷം നമുക്ക് അത് അങ്ങോട്ട് അത് നമ്മളാൽ ഉപേക്ഷിക്കപെടും പിന്നീട് അത് ഓർക്കുമ്പോൾ നമുക്ക് നമുക്ക് ആ എത്ര നമ്മൾ കാര്യമായ കളികളെല്ലാം ആസ്വദിച്ചിരുന്നു കളിച്ചിരുന്നു അനുഭവിച്ചിരുന്നു ഇപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന ദുഃഖം വരെ നമുക്ക് ഉണ്ടായേക്കാം